മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അതുപോലെതന്നെ സാങ്കേതികത്തിലായിക്കോട്ടെ കവിതയിലും ഒരുപാട് കഥ പോലും രചിക്കപ്പെടുന്നത് മലയാളത്തിലായിരിക്കും ഒരുപാട് തർജ്ജമകൾ വരുന്ന ഒരു ലാംഗ്വേജുകളിൽ ഒന്നാണ് ഒരുപാട് ഗ്രന്ഥങ്ങള് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതുപോലതന്നെ കായിക കല ആയിക്കോട്ടെ ഒരുപാട് രീതിയില് മലയാള ഭാഷ ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് കവിതകൾ തൊട്ട് വലിയ സമാഹാരങ്ങൾ വരെ കവിതയിൽ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ മലയാള ഭാഷയില് സാഹിത്യങ്ങൾക്ക് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് മഹാഭാരതം മുതൽ അങ്ങ് ബൈബിൾ വരെ നമ്മള് മലയാളത്തില് ഉണ്ട് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ മലയാള ഭാഷക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് കവിതാസമാഹാരങ്ങൾ ഉണ്ട് ഒരുപാട് എഴുത്തച്ഛന്മാരുടെ കവിതാസമാഹാരങ്ങൾ മലയാളത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരുപാട് ലാംഗ്വേജുകളിൽ നിന്ന് ഡിഫറൻറ്റ് ആയി ഒരുപാട് കവിതാ സമാഹാരങ്ങളും സാഹെ സാഹേന്ധിക സാഹിത്യ വിവരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഷകൂടിയാണ് മലയാളം മലയാളം ഒരു മാതൃഭാഷ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് ഒരുപാട് ഈസി ആയിട്ട് അക്ക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ലാംഗ്വേജ് ആണ് മലയാളം